ഹലോ അതെ പറഞ്ഞോളൂ ആ ഓക്കെ സാർ എപ്പോഴത്തേക്ക് ആണ് സാർ വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ബസ് ഒക്കെ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിരിക്കും സീറ്റ് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അത് ബുക്ക് ചെയ്യണം ആ സൈറ്റും ഇന്ന് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴത്തേക്ക് ആണ് നാളത്തേക്കത്തേക്ക് അല്ലേ ഓക്കെ അപ്പോൾ എന്നാൽ ഇന്നേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സീറ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും കാരണം ഓൾമോസ്റ്റ് എല്ലാ സീറ്റും നമുക്ക് ഇപ്പോൾ ഉണ്ടാവും നാളത്തേക്ക് ഒക്കെ ആവുമ്പോൾ സീറ്റുകളൊക്കെ ബുക്ക് ആയി പോവും അപ്പോൾ ചെറിയ വിഷയം ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിച്ച സീറ്റ് ഒന്നും കിട്ടിക്കോണമെന്ന് വരില്ല അപ്പോൾ സാർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ആ സ്ലീപ്പർ ഉണ്ട് സ്ലീപ്പർ അവൈലബിൾ ആണ് ആ ഓക്കെ അപ്പോൾ ആ വിൻഡോ സീറ്റ് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സീറ്റ് ഒക്കെ പ്രൊവൈഡ് എല്ലാം തന്നെ ഉണ്ടാവും പിന്നെ ലോംഗ് സീറ്റ് ഒക്കെ ആവുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുക ചിലപ്പോൾ കിട്ടിക്കോണമെന്ന് വരില്ല അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി ആ നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് പറയാനാണോ നിങ്ങൾക്ക് ഏത് സീറ്റ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ട് ഉള്ളതെന്ന് ഉള്ളതിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഈ നമ്പറിൽ അല്ലേ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഉള്ളത് ആ ഓക്കെ ഓക്കെ ഫ്രണ്ട് ആ ഓക്കെ ഓക്കെ ആ സീറ്റ് ആണോ ഓക്കെ അപ്പോൾ ടു തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ട്വൻറ്റി റുപ്പീസ് ആണ് വരുന്നത് മ് ആ പേ ചെയ്യണം എങ്കിലേ നമുക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ഈ നമ്പർ അല്ല നിങ്ങൾ ആ എനിക്ക് ഈ ജി പേയിൽ ഒക്കെ പേ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഞാൻ വാട്ട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കാം അപ്പം നിങ്ങൾക്ക് ബസ്സിൽ കയറുമ്പോൾ അത് കാണിച്ചാൽ മതി ആ കാണിച്ചാൽ മതി അപ്പോൾ അവർ അത് ഒന്നും അല്ല അല്ലാണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ ടിക്കറ്റിൻ്റെ പ്രൂഫ് മാത്രം അവിടെ കാണിച്ചാൽ മതി ആ മതി അതെ ഇന്ന് തന്നെ എന്തായാലും പേ ചെയ്തോളൂ ഞാൻ അത് ഇപ്പം തന്നെ പേ ചെയ്തിട്ട് സീറ്റ് ഞാൻ നിങ്ങൾക്ക് റിസർവ് ചെയ്തുതരാം ആ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആ ഇരുപത്തി ചില്ലറ വരും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ ഓക്കെ എങ്കിൽ ആ എമൗണ്ട് ഞാൻ കറക്റ്റ് പറഞുതരാം എന്നിട്ട് നിങ്ങൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേ ചെയ്തോ കേട്ടോ ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം